ആദ്യത്തെക്കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാങ്കേതിക വിദ്യയുടെ ഇത് വളരെ കുറവായിരുന്നു ഇപ്പോൾ പിന്നെ പിന്നീട് അതായത് നമ്മുടെ ഈ കാലത്തൊക്കെയാണ് നമുക്ക് സാങ്കേതികവിദ്യ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അതായത് ഇപ്പോൾ രണ്ടായിരത്തിപ്പതിനഞ്ചിന് ഇങ്ങോട്ടൊക്കെ ആണ് കൂടുതലായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്നും കമ്പ്യൂട്ടർ ക്ലാസ്സ് അങ്ങനത്തെ ക്ലാസ് ഒന്നും ഇല്ല ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നാം ക്ലാസ് ഒക്കെ ആകുമ്പോൾതന്നെ നമുക്ക് ചെറുത് ചെറുതായിട്ട് കമ്പ്യൂട്ടറിലും കാര്യങ്ങളിലൊക്കെ അതായത് സ്കൂളുകളില് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാര്യങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് കുട്ടികൾക്ക് അതായത് അത് വലിയൊരു ഗുണമാണ് പണ്ടത്തെ അപേക്ഷിച്ച് നമുക്ക് വലിയൊരു ഗുണമാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യ അതുപോലെതന്നെ ഇപ്പോൾ ഓൺലൈൻ പഠനം അന്താരാഷ്ട്ര സഹകരണങ്ങൾ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലെ സഹകരിച്ചിട്ടുള്ള പഠനം ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോണിലൊക്കെ ഇപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി ക്ലാസിൽ പോയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ആ ഫോൺ വഴി എഴുതാൻ പറ്റും പക്ഷേ പണ്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ നോട്ടുബുക്ക് ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് പഠിക്കാമെന്ന് അല്ലാണ്ട് അങ്ങനെ ഒന്നും പറ്റില്ല ഇപ്പോൾ എന്നുവെച്ച് ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ നല്ല തമ്മിൽ നല്ല സഹകരണവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഒരാൾ ഒരു ദിവസം പോയില്ലെങ്കിലും നോട്ട് ഒക്കെ ഇട്ടു കൊടുക്കുക അങ്ങനെ അതായത് എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞു കൊടുക്കുക അതൊക്കെ നമുക്ക് സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് നടക്കുന്ന കാര്യമാണ്